എന്റെ യാത്രയില് എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് മണിക്കുന്ന് മല കയറ്റാണ് അതിന്റെ പ്രതേൃകതയെന്നു പറഞ്ഞു കഴിഞ്ഞാല് അവിടേക്ക് വര്ഷത്തില് ഒരിക്കല് മാത്രമാണ് പ്രവേശനം ഉള്ളത് അതുകൊണ്ടുത്തന്നെ ആയിരക്കണകന് ആളുകളാണ് ആ ഒരു ദിവസത്തിനുവേണ്ടി മാത്രം ഈ മല കയറുന്നത് മണ്ണും മനുഷ്യനുമായിട്ടുള്ള ഒരു ആത്മബന്ധം നമുക്ക് അടുത്തറിയാന് പറ്റുന്ന രീതിയിലുള്ളൊരു യാത്രയായിരിക്കും ഈ മണിക്കുന്ന് മല കയറുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണിക്കുന്ന് മല സ്ഥിതിചെയ്യുന്നത് മുട്ടില് തൃക്കൈപ്പറ്റ എന്നീ രണ്ട് സ്ഥലങ്ങള്ക്കിടയിലാണ് ഇത് തൃകൈപ്പറ്റ മലയോട് ചേര്ന്നാണ് കിടക്കുന്നത്

വൃതൃസ്ത അനുഭവം തന്നെയായിരിക്കും ഈ മണിക്കുന്ന് മല കയറുമ്പോള് കിട്ടുന്നത് അതോടൊപ്പം സുന്ദരമായൊരു ഭൂപ്രകൃതി നമുക്ക് മണിക്കുന്ന് മല കയറിക്കഴിഞ്ഞാല് കാണാന് പറ്റും